ഏത് തരത്തിലുള്ള ക്യാമറയാണ് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പ്രൊഫഷണൽ ക്യാമറയോ അല്ലെങ്കിൽ ഒര് ഡിജിറ്റൽ ക്യാമറയൊന്നുമല്ല എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഫോണെന്ന് പറയുന്നത് ഐ ഫോൺ ട്വൽ പ്രോയാണ് എനിക്ക് ഫോട്ടോസെടുക്കാൻ കൂടുതലും ഇഷ്ടമുള്ളത് കൊണ്ടുതന്നെയാണ് ഞാൻ ഒര് ഐ ഫോൺ മേടിച്ചത് അതിലൂടെ അതില് ഞാൻ ഒ എനിക്ക് ഫോട്ടോസെടുക്കുന്നതിലൂടെ നല്ല ക്ലാരിറ്റിയിലും നല്ല വ്യക്തതയിലും നല്ല രീതിയിൽ ഉള്ള കളറോപ്ഷൻസിലും കളർ ക്രീയേറ്റിങ്സിലൂടെയും എനിക്ക് നല്ല രീതിയിൽ ഉള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട് എന്നതാണ് ഇതിൻറെ മറ്റൊരു പ്രത്യേകം ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് ഈ ഫോട്ടോസെല്ലാം വളരെ ഇഷ്ടമാണ് ഞാനെടുക്കുന്ന ഫോട്ടോസൊക്കെ ഐ ഫോൺ വഴിയാണ് ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അതിലൂടെതന്നെ സെറ്റിങ്ങ്സും അതില് തന്നെയുള്ള എക്സ്റ്റേർണൽ അപ്ലിക്കേഷൻസ് പോലുള്ള ലൈറ്റ് റൂമുമൊക്കെ യൂസെയ്തിട്ടാണ് ഞാൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കളർ ക്രീയേറ്റീങ്ങ് കൊടുക്കുന്നത് ഐ ഫോണിൻ്റ തന്നെ എഡിറ്റിംഗ് ഓപ്ഷനിലും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് ഫോട്ടോസ് എടുക്കുന്നത് ഉള്ള മാർഗങ്ങള് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതല് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഞാന് കൂടുതലും പ്രകൃതി ആയിട്ടുള്ള ബന്ധപ്പെടുന്ന ഫോട്ടോസായിരിക്കും എടുക്കുന്നത് ആളുകളുടെ ഫോട്ടോസ് എന്നും പറഞ്ഞ് എടുക്കാൻ ഇഷ്ടമില്ലാ എന്നല്ല ഏറ്റവും കൂടുതലൊരു സമാധാനം ഒരു കംഫർട്ടബളും ആയിട്ടുള്ളത് കൂടുതലും പ്രകൃതിയുടെ ഫോട്ടോസ് എടുക്കുബത്തേക്കുമാണ് അതിലാണ് ഞാൻ ഏറ്റവും കൂടുതല് സന്തോഷം കണ്ടെത്തുന്നത് എന്നതാണ് മറ്റൊരു തര തരം എന്ന് പറയാം ഇതൊക്കെയാണ് ഈ ഫ് ക്യാമറയിനെ പറ്റിയും ചിത്രീകരണത്തിനെ പറ്റിയും പറയാനായിട്ടുള്ളത് ഇനിയും ചോദിക്കുകയാണെന്നുടെങ്കിൽ എന്തുകൊണ്ട് ഐ ഫോൺ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത്കൊണ്ട് ഐ ഫോൺ ഓപ്റ്റ് ചെയ്യുന്നു എന്നൊര് കാരണത്തെപ്പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഐ ഫോൺ വളരെ നല്ലതാണ് ഫോട്ടോഗ്രഫിക്ക് അകത്തിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഐ ഫോൺ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് ഐ ഫോൺ ഉപയോഗിക്കുന്നത് അത് ഫോട്ടോഗ്രാഫിക്ക് വളരെ അധികം എന്നെ ഓ ഹെൽപ്പ് ചെയ്യുന്ന എന്നെ സഹായിച്ചിട്ടുമുള്ള ഒരു കാര്യം തന്നെയാണ്